ഹലോ റാണിയല്ലേ ഞാനെൻ്റെ വിസയുടെ ഒരവശ്യത്തിനായിട്ട് ഇവിടെ എറണാകുളത്ത് എത്തിയതാണേ അപ്പം എൻ്റെ ആധാറിൻ്റെ ഒറിജിനൽ കൊടുക്കണമെന്ന് അവിടുന്ന് ആവശ്യപ്പെട്ടു ഞാൻ ആധാറിൻ്റെ ഒറിജിനൽ കൊണ്ടു വന്നിട്ടില്ല എനിക്കത് ഡിജി ലോക്കറിൽ നിന്ന് അത്യാവശ്യമായിട്ട് അതിൻ്റെ ഒരു കോപ്പി ആവശ്യമായിട്ടുണ്ട് അതൊന്നടുത്ത് എൻ്റെ മെയിലിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാമോ നിനക്കാണെങ്കിൽ ഡി ജി ലോക്കറിൻ്റെ ഉപയോഗക്രമവും അതിൻ്റെ പാസ്വേർഡ് കാര്യങ്ങളും അതിൻ്റെ സൈറ്റ് എല്ലാം അറിയാമല്ലോ അതു കൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ മെയിൽ ഐ ഡി ഞാൻ നിനക്ക് വാട്സ് ആപ്പ് ചെയ്യാം എത്രയും പെട്ടെന്ന് എൻ്റെ ഡിജി ലോക്കറിലേക്ക് ഒന്നിട്ടു തരണേ അപ്പം ഞാൻ ആധാറിൻ്റെ ഒറിജിനൽ വേണമെന്നു പറഞ്ഞു ഞാൻ ഒറിജിനൽ കൊണ്ടു വന്നിട്ടില്ല കോപ്പി മാത്രമേ ഉള്ളെന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു ഡിജി ലോക്കറിൽ നിന്ന് അതിൻ്റെ കോപ്പി എടുത്തു തന്നാൽ മതിയെന്നു പറഞ്ഞു അപ്പം എത്രയും പെട്ടെന്ന് അതിനെ എനിക്കൊന്നു സാധിച്ചു തരണമെന്ന് ഓക്കെ താങ്ക് യൂ